പല്ലുവേദന എനിക്ക് ഒരാഴ്ച കാണിച്ചു കുറഞ്ഞില്ല ഓട്ടയുള്ള പല്ലിന് കുറവില്ല ഒരു പ്രാവശ്യമേ കാണിച്ചിട്ടുള്ളൂ

പുറത്തൊന്നും നീരില്ല കുറവുണ്ട് നീരെല്ലാം ഉണ്ടായിരുന്നു പോയി കാണിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു വീണ്ടും വന്നതാണ്

ആ ആ